ഹലോ ആ പറയു അതെ ഓക്കെ ഡോക്ടറെ കാണിച്ചിരുന്നോ കുറേ ദിവസമായോ പനി വന്നിട്ട് ഓക്കെ ഓക്കെ മഴ കൊണ്ടിരുന്നോ ആ ജലദോഷമോ കുറച്ച് ഡോസ് ഒരു അറുന്നൂറ്റമ്പതിൻ്റെ ഡോളോ വാങ്ങുമോ അതൊരു രണ്ടെണ്ണം വാങ്ങി കഴിക്കുക എന്നിട്ട് കുറവില്ലെങ്കിൽ പറയണം ജലദോഷമുണ്ടെങ്കിൽ ആവി പിടിക്കുക ആ വേറെയെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ ഉപ്പ് വെള്ളം കൊളുകണം ആ പിന്നെയോ അതു നമുക്ക് കുറവില്ലെങ്കിൽ നോക്കാം ഇപ്പോൾ രാവിലെ ആ അത് വരികയാണെങ്കിൽ നന്നായിരുന്നു ബുക്ക് ചെയ്യാമായിരുന്നു അതുപോലെതന്നെ ഞാനൊരു വൈകുന്നേരം വന്നോളൂ ടോക്കൺ ബുക്ക് ചെയ്യണോ ആ ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്യണം

ബുക്ക് ചെയ്യട്ടെ എന്നാൽ അല്ല ഇപ്പോൾ ഇപ്പം ബുക്ക് ചെയ്യണോ ആ ഒന്ന് പേര് പറയുമോ

സ്ഥലമോ ഓക്കെ ഓക്കെ ഏഴാണ് കേട്ടോ ടോക്കൺ ആ വൈകുന്നേരം ഒരു മൂന്നരയൊക്കെ ആവുമ്പോൾ വന്നോളൂ ഒരു മൂന്നരയൊക്കെ ആവുമ്പോൾ എത്തണം ഓക്കെ ഓക്കെ താഴെ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കിട്ടുക കേട്ടോ മരുന്ന് ഗുളിക ടോക്കണെ ഓക്കെ ശരി ആയിട്ടുണ്ടാവും വേറെയെന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം പിന്നെ അതുപോലെ നിങ്ങൾ മരുന്ന് വാങ്ങിയതിൻ്റെ ഇതൊന്ന് എടുത്തു വരണം സ്ലിപ്പ് ഓക്കെ ശരി